ഹലോ ആ സാറിൻ്റെ പേര് എന്താണ് വീട് എവിടെ ആണ് സർ കുന്നമംഗലം ആണ് അല്ലെ ആ സർ ഞാൻ ഒരു ഏജൻറ്റ് ആണ് എൽ ഐ സീൻ്റെ ഒര് ഏജൻറ്റ് ആണ് എൽ ഐ സിയിൽ ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ പേര് അഫ്ന എന്ന് ആണ് സാറിന് ഞങ്ങളുടെ എൽ ഐ സിയിൽ ചേരാൻ താൽപ്പര്യം ഉണ്ടോ എന്ന് അറിയാൻ വിളിച്ചതാണ് ആണോ സർ എത്രയിന്റെ ആണ് സർ

എത്ര കൊല്ലത്തെ ആണോ വർഷത്തെ ആണോ

ആണോ സർ സർ എന്താണ് വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ നേഴ്സ് ആണോ സർ ഓക്കെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ എന്തെങ്കിലും എൽ ഐ സി അങ്ങനെ എന്തെങ്കിലും കൂടിയായിരുന്നോ ആണോ ഞങ്ങൾ ഇത് മാസം അയ്യായിരം രൂപ വെച്ചിട്ട് ആണ് അടയ്ക്കുന്നത് ആ അയ്യായിരം വെച്ച് പിന്നെ താൽപ്പര്യം ഉള്ളവർക്ക് അയ്യായിരം വെച്ച് കൂടാം ഇല്ലെങ്കിൽ ആഴ്ച്ച മാസത്തിൽ ആണെങ്കിലും അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അടച്ചാലും മതി ഇളവ് അനുസരിച്ച് അടയ്ക്കാം ഇത് നല്ലൊരു സ്കീം ആണ് സാറിന് കൂടാൻ താൽപ്പര്യം ഉണ്ടോ അത് മാസം എത്ര വെച്ചിട്ടാണ് അടയ്ക്കുന്നത് സർ ആ ഇത് പക്ഷേ ഇത് വളരെ കുറവ് എമൗണ്ട് ആണ് അടയ്ക്കേണ്ടത് സർ നമ്മളുടെ കൈയ്യിൽ ഉള്ളത് വെച്ച് അടച്ചാലും മതി കൂടുതൽ ആയിട്ട് ഒന്നും ചോദിക്കുന്നില്ല ഒര് അഞ്ഞൂറ് രൂപ മാസം അടച്ചാൽ മതി

ആണോ സർ സാറിൻ്റെ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും എൽ ഐ സിയിലോ എന്തിലെങ്കിലും ചേർന്നിട്ടുണ്ടോ ആണോ സാറിന് ഇനി ഈ ഇതിൽ കൂടാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ സർ ഈ നമ്പറും ആയിട്ട് കോൺടാക്ട് ചെയ്യണം കേട്ടോ ഓക്കെ എന്നാൽ ശരി സർ താങ്ക്യൂ